ഒൻപത് ഒൻപത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് ഇരുപത്തി ഏഴ് നാല് ആയിരത്തി തൊള്ളായിരത്തി എൺപ്പത്തി അഞ്ച് മുപ്പത് എട്ട് രണ്ടായിരത്തി പതിനേഴ് ഇരുപത്തി ആറ് പതിനൊന്ന് രണ്ടായിരത്തി പതിനാല് രണ്ട് നാല് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല്